അതെ പറയൂ ഏത് പ്രോജക്റ്റാണ് ഇന്ന് ആ ഈ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്

ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് ഓർഫണേജ്കളാണ് നടത്തുന്നത് അതിലുള്ള ഒരു നൂറ്റി തൊണ്ണൂറ് പിള്ളേരുണ്ട് ആ പിള്ളേരുടെ എല്ലാ സമഗ്ര വിദ്യാഭ്യാസവും അവർക്കുള്ള എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല അവർ കായികപരവും അതോ കലാപരമായിട്ട് അവരെ ഞങ്ങൾ അഭ്യസിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് വഴി ഈ കുട്ടികൾ ഭാവിയിൽ നല്ല പൗരന്മാരെ ജീവിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ അവരെ പരിശ്രമിക്കുന്നുണ്ട്

ഇപ്പോൾ ഞങ്ങൾ കണ്ട് വരുന്നത് ഇപ്പോൾ പുതിയ പിള്ളേരെയൊക്കെ അവർക്ക് ആ ബുദ്ധിമാന്ദ്യം സംഭവിച്ചാൽ അവരുടെ അച്ഛന്മാർ അതോ അവരുടെ മാതാപിതാക്കൾ അവരെ ഓർഫണേജ്കളിൽ കൊണ്ട് ഇടുന്നതാണ് അത്കൊണ്ട് നമ്മൾ അവർ അവർക്ക് പ്രത്യേകമായ ചികിത്സയും അത് മാത്രമല്ല അവർക്ക് പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യും ഞങ്ങൾ ഞാനും എൻ്റെ ടീമു ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ കൂടുതലായ കുറെ പ്രൊജക്റ്റ് തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അത്വഴി കൂടുതൽ പിള്ളേരെ ഞങ്ങൾ ഓർഫണേജിലേക്ക് കൊണ്ട് വരുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇനി ഭാവിയിൽ കൂടുതൽ അനാഥരായി കിടക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രായമായവരെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റായൊരു സ്ഥാപനത്തിലാണ് അത് അവരുടെ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശമില്ല കാരണം അവർക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ആളുകളുടെ ഒരു അറിവും ഇല്ലാതെ നടത്താനാണ് ആഗ്രഹം കാരണം ഇതൊക്കെ അറിഞ്ഞ് കുറെ പേര് പ്രത്യേകമായിട്ട് ചിലവർ അവരുടെ പിള്ളേരെ അനാഥരാക്കാൻ ഇവിടെ കൊണ്ട് വരുന്നുണ്ട് അത് തടയാൻ ഇനി ഈ അനാഥരാക്കപ്പെടുന്ന പിള്ളേർക്ക് അവരുടെ സുരക്ഷ കൊണ്ട് വരുന്നത് പ്രത്യേകിച്ച് അവരുടെ വിവരങ്ങൾ വേറെ ആരും അറിയാതിരിക്കട്ടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ